ഹലോ ഹരിദാസൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഓഫീസറ് അല്ലേ

ആ ഞാന് ഞാൻ ഇൻഫോസിസില് വർക്ക് ചെയ്യുന്നു ആ ഇൻഫോസിസില് വർക്ക് ചെയ്യുന്നത് ഒരു മാനേജരാണ് സംസാരിക്കുന്നത് ആ അപ്പോൾ ഞാന് കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു ഇയാ സുരക്ഷേൻ്റെ ബന്ധപ്പെട്ട് അത് ഒക്കെ ചെയ്തിട്ട് ഉണ്ടോ

എത്ര പേര് വരും

ആ നമുക്ക് ഇപ്പം പ്രധാനമായി ആവശ്യം ഉള്ളത് അഗ്നി സുരക്ഷയ്ക്ക് വേണ്ടീട്ടുള്ള ആവശ്യം ആണ് അതിന് ഉള്ള യന്ത്രങ്ങളും മറ്റ് വാഹനങ്ങളും നിങ്ങളെ കൈയ്യിൽ ഉണ്ടോ അതോ നമ്മള് വേറെ പുറത്ത് എവിടേങ്കിലും കൊടുക്കണ്ട ആവശ്യം ഉണ്ടോ വേറെ

ആ നമ്മള് പിന്നെ ഈ നമ്മള് പിന്നെ ഒര് ആവശ്യമെന്ന് വെച്ചാൽ ഈ വൈദ്യുതിക്ക് വേണ്ടിയിട്ട് ഉള്ള എന്തെങ്കിലും ആൾക്കാർക്ക് ഉള്ള സംരക്ഷണത്തിൻ്റെ ആണ് അതായത് വൈദ്യുതി നമ്മളെ ഉപയോഗിക്കുന്ന നമ്മള് കമ്പ്യൂട്ടറാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ കൈയ്യിൽ ഉള്ളത് അതോ എന്തായിരുന്നു നി നിങ്ങൾ ഉദ്ദേ ആ നിങ്ങൾ എത്ര മണിക്കൂറത്തെ ക്ലാസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്

ആ എന്നാൽ ശരി ഞാൻ എന്നാല് ഒര് തരാം